ഇപ്പം നമ്മുടെ പാചകത്തിലൊക്കെ നമ്മള് ഔഷധ സസ്യങ്ങള് എങ്ങനെയാണ് ഉപയോഗിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മല്ലിച്ചപ്പ് അതായത് മല്ലിച്ചപ്പ് പൊതീനച്ചപ്പ് അങ്ങനത്തെ ചപ്പുകളൊക്കെ ഉണ്ടാവില്ലെ അതൊക്കെ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് സാമ്പാറിലിടും അല്ലെങ്കിൽ നമ്മള് ചിക്കൻ കറി കാര്യങ്ങളൊക്കെ വെയ്ക്കുമ്പോൾ നമ്മളതിലിടും ബിരിയാണിയിലിടും അങ്ങനത്തക്കേന്ന് വെച്ചിട്ടുണ്ടെങ്കില് നല്ലതായി നമ്മള് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് കേടില്ലാത്തൊരു സംഭവം തന്നെയാണ് ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മള് ചീര അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചീര സാധാ ചീര അവയിലെ മത്തൻ ചപ്പ് എളവൻ ചപ്പ് അങ്ങനത്തെ പിന്നെ അതായത് പച്ചക്കറികളുടെയൊക്കെ ചപ്പുകളൊക്കെ നമ്മള് തോരനൊക്കെ വെക്കും തോരനൊക്കെ വെച്ചിട്ടുണ്ടെങ്കില് നല്ല ടേസ്റ്റു ആണ് നമുക്കത് ഹെൽത്തിയാണ് ചീരാ ചീരയൊക്കെ വെക്കു ആണെങ്കിൽ നമുക്ക് കണ്ണിന് കാഴ്ച്ച കൂടുതല് കിട്ടും അങ്ങനെയൊക്കെ നമുക്ക് പറയും അപ്പോൾ അതൊക്കെ നമ്മളെ ഔഷധ സസ്യങ്ങള് തന്നെയാണ് പിന്നെ നമുക്കിപ്പം തുളസീനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പം വെള്ളമൊക്കെ നമ്മള് തിളപ്പിക്കുകയാണെങ്കിൽ തുളസിയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിനൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ പനികൂർക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒര് ഇല ഉണ്ട് അത് നമുക്ക് കുട്ടികൾക്കൊക്കെ അതായത് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മള് ജലദോഷമൊന്നും വരാണ്ടിരിക്കാൻ ഓരോ തുള്ളി അതായത് സ്പൂണിലൊക്കെ ആക്കിയിട്ട് അത് അതായത് അതിൻ്റെ നീരെല്ലാം അതായത് എടുത്തു ചൂടാക്കിയിട്ട് സ്പൂണിലൊഴിച്ചിട്ട് ഓരോ തുള്ളി അവർക്ക് കൊടുക്കും അതൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ജലോദോഷം പനി കാര്യങ്ങളൊന്നും വെരില്ലാന്നും പറയുന്നു അങ്ങനെ ഒരുപാട് ഔഷധ ചെടികള് നമുക്ക് നമ്മളറിയാത്ത ഔഷധ ചെടികളെന്നെ ഒരുപാട് ഇപ്പഴും നമ്മുടെ മുന്നിൽ തന്നെയുണ്ടാകും